ഞാന് തയ്യിക്കുന്നതിനോടൊപ്പം ഞാന് പഠിപ്പിക്കുന്നും ഉണ്ട് പിള്ളാരെ എന്റെ കൈ അടുത്ത് നിന്ന് ഇപ്പോൾ ഒര് പത്തിരുപത്തഞ്ച് പിള്ളാരെങ്കിലും പഠിച്ച് പുറത്ത് സ്വന്തം കാര്യങ്ങള് നോക്കാനായിട്ട് പുറത്തോട്ട് ഒത്തരി തയിച്ചു കൊടുത്തില്ലെങ്കിലും അവരുടെ കാര്യങ്ങള് അവര് വേണ്ട രീതിക്ക് തയിച്ചെടുക്കാനായിട്ട് അവര് ശ്രമിക്കുന്നുണ്ട് അതില് ഒന്ന് രണ്ട് പേര് നല്ല രീതിയില് തയിക്കാൻ നല്ലതായിട്ട് പഠിച്ച് അവരൊത്തിരി അവര്ക്കൊത്തിരി അഭിമാനവും അവര്ക്കൊത്തിരി സന്തോഷവും വരുന്നത് പഠിപ്പിച്ചപ്പം പിന്നെ നമ്മളുടെ അടുത്ത് വരുന്നവരൊന്നും അറിയാന് മേലാതെ വരുന്നവരെ നമ്മള് പഠിപ്പിച്ച് ത് അവര് തന് സ്വന്തമായിട്ട് ചെയ്യുമ്പം അവർക്ക് ഉണ്ടാകുന്ന സന്തോഷം അത് അത്കൂടാതെ നമുക്ക് അത് കാണുമ്പം നമുക്കും അതിലും വലിയ സന്തോഷമാണ് ഉണ്ടാകുന്നത് പോട്ടെ എനിക്ക് ഒരാൾക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയല്ലോ എനിക്ക് ഒരാൾക്കും കൂടെ അത് കാണിച്ച് കൊടുക്കാൻ അവരെ കൂടെ പഠിപ്പിക്കാൻ പറ്റിയല്ലോ അവരെ സ്വന്തമായിട്ട് അവരുടെ ഡ്രസ്സ് തയിച്ച് ഇടാൻ പ്രാപ്തരാക്കാന് പറ്റിയല്ലോ എന്നുള്ള ആത്മസന്തോഷം നമുക്ക് അത് നമുക്ക് പറഞ്ഞറിയിക്കാന് പറ്റാത്ത രീതിയിൽ ഉള്ള ഒര് സന്തോഷമാണ് അതുപോലെ നമുക്ക് പത്തിരുപത്തഞ്ച് പിള്ളേരോളം ഞാന് ഇപ്പം പഠിപ്പിച്ചു പഠിപ്പിച്ചവരെല്ലാം ഇപ്പം തന്നെ സ്വന്തമായിട്ട് അവരുടെ കാര്യങ്ങള് ചെയ്യുന്നുണ്ട് ബ്ലൗസൊക്കെ നല്ല ഞാന് കാണിച്ച് കൊടുത്തതിലും ഒക്കെ നല്ല സൂപ്പറായിട്ട് നല്ല രീതിയില് നല്ല രീതിയിലാണ് അവരൊക്കെ തയിച്ച് ഇടുന്നത് ചുരിദാറും ബ്ലസും അതുപോലെ തന്നെ പി സ്വന്തം പിള്ളേരുടെ യൂണീഫോമൊക്കെ ഇപ്പം ഇപ്രാവശ്യത്തെ യൂണീഫോമൊക്കെ സ്വന്തമായിട്ട് തന്നെ തയിച്ച് അങ്ങനെ കൊടുത്ത പിള്ളേരും ഉണ്ട് ഞാന് പഠിപ്പിച്ച പിള്ളേര് അങ്ങനെ എല്ലാവരും നല്ല രീതീക്ക് കൊച്ചു പിള്ളേര് ഉള്ളവർ ഉണ്ടായിരുന്നു അവരൊക്കെ കൊച്ചു പിള്ളേർക്ക് ഫ്രോ ഉടുപ്പുകളൊക്കെ നല്ല രീതിയിൽ തയിച്ച് കൊടുത്തു അതുപോലെ പിന്നെ ചുരിദാറും പാവാടയും ബ്ലൗസും സാരി ബ്ലൗസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും സാരി ബ്ലൗസൊക്കെ നല്ല രീതിയിലാണ് അവര് തയിക്കാൻ പഠിച്ചത് പിന്നെ ഷർട്ടൊക്കെ പഠിപ്പിച്ചു പിള്ളേരുടെ യൂണീഫോം ഷര്ട്ട് തയിക്കാൻ പഠിപ്പിച്ചു അതും ഒന്ന് രണ്ട് പിള്ളേരൊക്കെ തന്നെ സ്വന്തമായിട്ട് അവരുടെ പിള്ളേർക്ക് വേണ്ടുന്ന രീതിക്ക് അവര് തയിച്ച് തന്നെ ഇട്ട് തന്നിട്ട് എനിക്ക് വീഡിയോ ഫോട്ടോ ഇട്ട് തരും ചേച്ചി ഞാൻ തന്നെ തയിച്ചതാണ് ദേ എന്റെ കുഞ്ഞിന് ഞാന് തന്നെ തയിച്ച് കൊടുത്തതാണ് പിന്നെ അവരുടെ സ് എന്തേലും സംശയം ഉണ്ടെങ്കിൽ അവര് പഠിച്ച് പോയ പിള്ളേരാണെങ്കിലും ചിലപ്പോൾ അളവുകളെടുക്കുമ്പം എന്തേലും സംശയങ്ങളൊക്കെ അവർക്ക് ഉണ്ടാകും അവര് അന്ന് അപ്പഴ് എന്നെ വിളിക്കും ചേച്ചീ ഇതിനെത്രയാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് എത്ര തുണിയെടുക്കണം അതെങ്ങനെയാണ് വെട്ടണ്ടത് ചിലപ്പം വീഡിയോ കോൾ വഴി ഞാനവര്ക്ക് പറഞ്ഞ് കൊടുക്കാറുണ്ട് അവര് നല്ല രീതിയിലത് കണ്ട് അവര് ചെയ്യാറുണ്ട് അവര് ചെയ്തു അവര് എന്തേലും സ്വന്തമായിട്ട് തയിച്ചിട്ട് കഴിയുമ്പം എനിക്ക് ഫോട്ടോ ഇട്ട് തരാറുണ്ട് അങ്ങനെ എല്ലാ രീതിയിലും അവര്ക്ക് ഒര് ടീച്ചർ എന്നുള്ള നിലയിൽ ഞാനും ഒത്തിരി സംതൃപ്തയാണ് കൂ ന്നെ കുട്ടികളെന്ന നിലയില് അവരും ആ കാര്യത്തിൽ ഒത്തിരി സന്തോഷം ഉള്ളവരാണ് എല്ലാ രീതിയിലും അവർക്ക് ഒത്തിരി അഭിമാനമുണ്ട് എനിക്ക് ഒത്തിരി അഭിമാനമുണ്ട് എന്റെ കുട്ടികള് തന്നെ ഇട്ടുകൊണ്ട് വരുമ്പം ഞാന് പഠിപ്പിച്ച് അവര് പഠിച്ച് അത് തന്നെ അവര് ഇത് ചെയ്ത് കഴിയുമ്പം അവർക്ക് ഉണ്ടാകുന്ന സന്തോഷവും അവര് ഇപ്പഴും പിള്ളേര് എതേത് വഴിയെ എന്റെ വീടിന്റ അടുത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ അവര് അവിടെ കയറി ക്ലാസ്സില് കയറി മറ്റുള്ള പിള്ളേര്ക്കെല്ലാം പറഞ്ഞ് കൊടുക്കും ഞങ്ങളുടെ ടീച്ചറ് നല്ലതായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ തയിക്കാൻ പറ്റി ഞങ്ങളുടെ ടീച്ചറ് അങ്ങനെ ആണ് ഇങ്ങനെയാണ് എന്നൊക്കെ അവരൊത്തിരി ബഹുമാനത്തോട് പറയുന്നു അതൊക്കെ കേൾക്കുമ്പം നമുക്കും ഒത്തിരി അഭിമാനമാണ് പിന്നെ അവരെ നമുക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയല്ലോ എന്നുള്ള ഓര്ത്തത് പണ്ട് എപ്പഴും നമുക്ക് അറിയാവുന്ന കാര്യങ്ങള് നമ്മള് മറ്റുള്ളവര്ക്ക് പറഞ്ഞ് കൊടുക്കാൻ ശ്രമിക്കുക അത് നമുക്കും അതും കൊണ്ടവര് ആ അറിവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകത്തും ഇല്ല നമുക്ക് ഒന്നും കൂടെ അറിവ് അതിനകത്ത് ഉള്ള ആ ആ ഇത് ആഴം കൂടത്തേയുള്ളൂ മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും എന്റെ ഇത് അനുസരിച്ച് ഞാൻ ചെയ്യുന്ന എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാന് മറ്റുള്ളവര്ക്ക് പറഞ്ഞ് കൊടുക്കാറുണ്ട് അതിന് ചുമ്മാ വീട്ടിലിരുന്ന് മറ്റും എന്നെ എൻ്റെ അടുത്ത് തയിക്കാൻ കൊണ്ട് വരുന്നവരോട് പോലും ഞാന് പറയും സ്വന്തമായിട്ട് തയിക്കാൻ പഠിക്കരുതോ മെഷീനൊക്കെ ഉള്ളവര് പോലും ചിലപ്പം എന്നാ അടിക്കാനും സൈസ് ചെയ്യാനും ഒക്കെ കൊണ്ടുവരും അപ്പോഴൊക്കെ ഞാനവരെ വഴക്ക് പറയും നിങ്ങളുടെ ഒക്കെ വീട്ടില് മെഷീനുണ്ടായിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാന് പറ്റത്തില്ലേ സ്വന്തമായിട്ട് സ്വന്തം കാര്യങ്ങള് ചെയ്യാനായിട്ട് നിങ്ങള് ശ്രമിക്ക് സ്വന്തമായിട്ട് തന്നത്താനെ ചെയ്യുമ്പം അതില്നിന്ന് കിട്ടുന്ന ആ സന്തോഷം അതൊന്ന് നമുക്കൊന്നും പ്രത്യേകം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷങ്ങളാണ് അത്കൊണ്ട് അതൊക്കെ ചെയ്യാന് ന്ന് ശ്രമിക്കണം നിങ്ങളങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാനവരെ പ്രമോട്ട് ചെയ്യാറെ ഉള്ളു അവരോട് പറഞ്ഞ് കൊടുക്കും നിങ്ങള് സ്വന്തമായിട്ട് ചെയ്യാന് പഠിക്ക് അതാണെപ്പഴും നമ്മുടെ അഭിമാനം വീട്ടിലെ ആള്ക്കാര്ക്കും നമ്മള് ചെയ്ത് കൊടുക്കുമ്പം അവരും അതു ഇട്ട് കാണുമ്പം നമുക്ക് ഉള്ള ആ കിട്ടുന്ന ആ ഒര് സന്തോഷം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് മേടി ഒര് തുണി മേടിച്ചാലോ ഒരു അതില്നിന്ന് കിട്ടുന്നതല്ല നമ്മള് സ്വന്തമായിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെ തയിച്ചിടുക എന്ന് പറയുമ്പം അതിനാത്തൊര് പ്രത്യേക ഇതുണ്ട് അത്കൊണ്ട് ഞാന് എൻ്റെ അടുത്ത് പഠിക്കുന്ന പിള്ളേരോട് എപ്പോഴും പറയും എൻ്റെ അടുത്ത് തയിക്കാൻ വരുന്നവരോടും ഞാന് പറയും നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കാര്യങ്ങള് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യാനായിട്ട് ഞാനവര്ക്ക് പറഞ്ഞ് കൊടുക്കും അത്കൊണ്ട് എപ്പഴും എനിക്ക് ആ കാര്യത്തിൽ നല്ല അഭിമാനം തോന്നിയിട്ടുണ്ട് ഞാൻ എനിക്ക് ഇത്രയും പിള്ളേരോട് പറ പിള്ളേർക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റിയതിലും അവരെ ഒന്നും മെഷീന് ചവിട്ടാൻ പോലും അറിയാന് മേലാത്തവരായിരുന്നു വന്നത് നൂലിടാന് അറിയത്തില്ല എല്ലാത്തരത്തിലും ഒന്നും അറിയാൻ മേലാതെ ഏ ബി സി ഡി ഒന്നും അറിയാന് മേലാതെ വന്നവരാണ് അവരെ ഞാനിന്ന് ഒരു തുണി വെട്ടി തന്നെ അളവെടുത്ത് തുണി അത് തുണി ഇടുന്ന വിധവും അത് തുണി വെട്ടി അത് തയിക്കേണ്ട വിധവും അതെല്ലാം പറഞ്ഞ് കൊടുത്ത് അവരെക്കൊണ്ട് അത് ചെയ്യിച്ച് അവരത് തന്നെ ചെയ്ത് ഇടുമ്പം നമുക്ക് കിട്ടുന്ന ആ സന്തോഷമന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം തന്നെയാണ് അതുകൊണ്ട് അക്കാര്യത്തിൽ എനിക്കൊത്തിരി സന്തോഷമുള്ള കാര്യങ്ങളാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മുടെ കാര്യങ്ങളെങ്കിലും പുറത്ത് ഉള്ളവരുടെ ചെയ്തില്ലേലും നമുക്ക് നമ്മുടെ കാര്യങ്ങളെങ്കിലും സ്വന്തമായിട്ട് ചെയ്ത് ചെയ്യാന് പറ്റിയാലതാണേറ്റവും നല്ല കാര്യം